ഹലോ പാസ്പോർട്ട് ഓഫീസ് ഹെൽപ്പ്ലൈൻ അല്ലേ സാർ ഞാൻ അവിടെയൊരു പാസ്പോർട്ടിനായി അപേക്ഷ നൽകിയിരുന്നു

ആ ദയവായി ക്ഷമിക്കണം സാറേ ഞാൻ അത് മറന്നു പോയിരുന്നു സാറേ ആ പാസ്പോർട്ടിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിരുന്നതേ ഓ ഉടനെ ലഭിക്കുമെന്നോ വളരെ നന്ദിയുണ്ട് സാറേ വളരെ നന്ദിയുണ്ട് സാർ